ഇപ്പോൾ കൃഷിയിലും വീട്ടു മുറ്റത്തും നമ്മൾ വളർത്തിയ വളർത്തുന്ന ചില സാധാരണ കോഴികളുണ്ട് നമുക്ക് പൂവൻകോഴി പിന്നെ അല്ലാത്ത രീതിയിലുള്ള കോഴികൾ കാര്യങ്ങളൊക്കെയുണ്ട് അതിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പരിപാലിക്കുവാണെങ്കി ഇപ്പോൾ മൊട്ട് അതായത് മുട്ടക്ക് വേണ്ടീട്ട് നമ്മൾ കോഴി വളർത്താറുണ്ട് അപ്പം അതിനെക്കാൾ നല്ല രീതിയിൽ ആ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഇടക്കിടക്ക് നമുക്ക് മുട്ട തരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നെ അല്ലാത്ത കോഴികൾന്നക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചി കോഴി അങ്ങനത്തെ കാര്യങ്ങളാണ് അതൊക്കെ നല്ല വലിയ രീതിയിലുള്ള ഫാമ് കാര്യങ്ങളൊക്കെ വേണം അതിന് ചൂട് അധികം തട്ടാൻ പാടില്ല നല്ല രീതിയിലുള്ള ഫാന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വരും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചത്ത് പോകുന്നത് കൊണ്ട് കോഴിക്കൊക്കെ ഭയങ്കരമായിട്ട് വിലയും കൂടി തുടങ്ങി കാരണംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പംഭയങ്കര വെയിലാണ് ഈ സമയത്തൊക്കെ മഴ പെയ്യേണ്ട ഒരു സാഹചര്യമാണ് പക്ഷേ ഇപ്പം ഈ ടൈമിലൊക്കെ വെയിൽ കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് കോഴി ചത്ത് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകണമെങ്കിൽ നമ്മൾ ഇപ്പമൊരു കോഴി നല്ല രീതിയിൽ വളർത്തി അതിന് നല്ല രീതീലുള്ള ഫുഡ് കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബിസിനെസ്സ് മുന്നോട്ട് പോകും ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനെസ്സ് പൊട്ടി പാളിസ്സാകാനുള്ള സാധ്യതകളും കൂടുതലാണ് താറാവുകൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് മെയ്നായിട്ട് വേണ്ടത് ആ കൂടുതലും ആ ഈ പുഴയാണ് പുഴ സൈഡ് അങ്ങനത്തെ സ്ഥലങ്ങളക്കെയാണ് കൂടുതലായിട്ടും വേണ്ടത് ഇതിന് നീന്തണം ഇതിന് ഡെയിലി തണുപ്പ് വെള്ളം എപ്പോഴും ദേഹത്ത് തട്ടി കൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു ടൈപ്പാണ് താറാവെന്ന് പറഞ്ഞാൽ